ബിരിയാണി തന്തൂരി ചിക്കനുണ്ട് അയ്യോ തന്തൂരി ചിക്കനിൽ കുറച്ചു കൂടി എരിവു വേണ്ടാ എന്നൊന്നു പറയണമായിരുന്നു ഇനിയിപ്പം പറയാൻ പറ്റുമോ ആ ആ ഒരു കാര്യം ആ ഇതിലെ റെസ്റ്റോറെൻറ്റിലെ നമ്പറിലേക്കു വോയ്സ് മെസ്സേജ് ഇടാം ആ അതു പറ്റുമല്ലോ ആ ഹലോ ആ ഞാനേ ഒരു ബിരിയാണിയും ഒരു തന്തൂരി ചിക്കനുമാണെ ഓർഡർ ചെയ്തത് തന്തൂരി കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അവിടെ നിന്നു കഴിച്ച തന്തൂരി ഭയങ്കര എരിയായിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ എരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ അതുമല്ല ബിരിയാണി ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് ഇരുനൂറ്റി മുപ്പതു രൂപയുടെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയൊന്നും നിങ്ങളുടെ ബിരിയാണിക്കില്ല അതെനിക്കു പറയണമെന്നു നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു അതു നിങ്ങൾക്കെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റത്തോ പറ്റുമോ ഈ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതു വളരെ മോശമാണ് കേട്ടോ സാധാരണ റെസ്റ്റോറെൻറ്റിലൊക്കെ ബിരിയാണി നൂറ്റൻപതു രൂപയ്ക്കു കിട്ടും പിന്നെ നിങ്ങളുടെ ക്വാളിറ്റിയിൽ ഞാൻ ഒരിക്കലും പറയില്ല നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി ആണ് അതു കൊണ്ടു തന്നെയാണ് ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ വരണതും പക്ഷെ ഇത്രയും ഇരുന്നൂറ്റി സം മുപ്പതുരൂപയോളം നമ്മൾ കൊടുക്കുമ്പം അത്രയ്ക്കുള്ള ഒരു ക്വാണ്ടിറ്റി എങ്കിലും ബിരിയാണിക്കു വേണ്ടേ പൊതുവെ ഞാൻ ഒരു ബിരിയാണി ലവ്വറാണ് പക്ഷെ എനിക്ക് പലപ്പോഴും ഇവിടുത്തെ ബിരിയാണി കഴിക്കുമ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവുപോലെ എനിക്കു ഫീൽ ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്തൂരി ചിക്കൻ കഴിച്ചപ്പോൾ വളരെ നല്ലതായിരുന്നു പക്ഷെ എരി അല്പം കൂടുതലായതു കൊണ്ട് എൻ്റെ മോനു കഴിക്കാൻ പറ്റിയില്ല അവൻ കുറച്ചേ കഴിച്ചുള്ളൂ കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര എരിയെന്നും പറഞ്ഞങ്ങ് നിർത്തി പിന്നെ അതു കൊണ്ട് എരി കുറക്കുകയും പിന്നെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി കുറച്ചു കൂടി കൂട്ടിയാലും വളരെ ഉപകാരമായിരുന്നു പിന്നെ ഞാനതിൻ്റെ കൂട്ടത്ത് ഒരു മേങ്കോ ജ്യൂസു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഐസ് ഇടേണ്ട ഐസ് എനിക്കു തൊണ്ടവേദന ആയതു കൊണ്ട് ഐസ് വേണ്ട തണുപ്പു കുറഞ്ഞിട്ട് മേങ്കോ ജ്യൂസായിട്ടു മതി പിന്നെ ഒരു ഞങ്ങൾ ഒരു ചിക്കൻ ഫ്രൈയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിക്കൻ ഫ്രൈ വളരെ നല്ലതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ക്ഷമിക്കണം നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവാണ് ഓഡർ ചെയ്തത് അതു വളരെ നല്ലായിരുന്നു കേട്ടോ പക്ഷെ അതും സംഭവം ഞാൻ പറഞ്ഞതു പോലെതന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു മുന്നൂറ്റൻപത് രൂപയാണ് നിങ്ങൾ ചിക്കൻ ഫ്രൈക്ക് ഇട്ട പൈസ പക്ഷെ ഭയങ്കര ഒരു ആറ് ഏഴു പീസ് ആറു പീസിനകത്തൊക്കെയേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അതിൻ്റെ നല്ല ക്രിസ്പിനെസ്സും നല്ല നല്ലൊരു ഇത ഐറ്റമായിരുന്നു അതു ഞങ്ങളിവിടെ നിന്നു കഴിച്ചേന്നുള്ള നല്ലൊരു ഡിഷ് ആയിരുന്നു ആ അത് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടെങ്കിൽ അതുമതി ഇല്ലെങ്കിൽ നിങ്ങൾക്കു ചിക്കൻ ഫ്രൈ ആയാലും മതി ചിക്കൻ ഫ്രൈയാണെങ്കിലും എരിവ് അധികം വേണ്ട അതു ഞങ്ങൾക്കു കാരണം മോനുംകൂടി ഉള്ളതു കൊണ്ടേ എരിവ് അധികം കഴിക്കാൻ പുള്ളിക്ക് പുള്ളിക്ക് പറ്റില്ല നിങ്ങളുടെ വേറെന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും മാങ്ങാ മാങ്ങാ മീൻ കറി ഉണ്ടെന്നു പറഞ്ഞായിരുന്നു ഞങ്ങൾ പിന്നെ അന്ന് ബിരിയാണി കഴിച്ചതു കൊണ്ടാണ് അത് ഓഡർ ചെയ്യാത്തത് അത് ഇന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റത്തിൽ മാങ്ങാ മീൻകറി ഉണ്ടോ എങ്കിൽ ഞങ്ങൾക്ക് ഒരു മാങ്ങാ മീൻ കറിയും കൂടി വേണം അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ എനിക്കൊരു അഞ്ച് അഞ്ച് അപ്പവും കൂടി തന്നാൽ വലിയ ഉപകാരമായിരുന്നു മാങ്ങാ മീൻകറി ഇവിടെ നിന്നു കഴിച്ചവരെല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതും കൂടി വേണം വേറെ വേറെന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റമുണ്ടോ ഫിഷ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കു വേണം വേറെന്തെങ്കിലും എന്തെങ്കിലും കൊഞ്ചോ അങ്ങനെ എന്തെങ്കിലും കണവക്കറിയോ അങ്ങനെയെന്തെങ്കിലും കണവ ഫ്രൈയുണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾക്കു വേണാമായിരുന്നു കേട്ടോ കൊഞ്ചു ഫ്രൈയും കണവഫ്രൈയായാലും കൊഞ്ചുഫ്രൈയായാലും ഓരോ പ്ലേറ്റ് വീതം പിന്നെ മേങ്കോ ജ്യൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളു ഒരു പൈനാപ്പിളും ഒരു മൊസാംബി ജ്യൂസും കൂടി ഏത് എല്ലാറ്റിലും ഐസ് ഇടേണ്ടാ കേട്ടോ തണുപ്പു വേണ്ട ഒന്നിനും തണുപ്പു വേണ്ട പിന്നെ ബിരിയാണി ബിരിയാണിയെന്നാൽ കുറച്ചും കൂടി പെട്ടെന്ന് ആദ്യം ബിരിയാണി കിട്ടിയാലും വലിയ ഉപകാരമായിരുന്നു ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന ഒരു വേറൊരു ഐറ്റം ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അതിൻ്റെ പേർ ഞങ്ങൾക്ക് ഓർമ്മയില്ല ഒരൂ ത് ചിക്കൻ ഐറ്റം തന്നെ ആയിരുന്നു എന്തോ ഒരു പ്രത്യേക പേരാണ് നിങ്ങൾ പറഞ്ഞത് ആ ഐറ്റം ഒരു സ്വീറ്റ്നെസ് അതിനൊരു മധുരമുണ്ടായിരുന്നു ആക്ച്വലി ആ മധുരം അതിനു വേണ്ടയെന്നു തോന്നുന്നു അത് കുറച്ചും കൂടി ആ മധുരം ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ ചിക്കൻ ഐറ്റം വളരെ നല്ലതായിരുന്നു എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല അതു നിങ്ങൾ അത് ആ ഐറ്റത്തിൻ്റെ പേര് ന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞു കൂടാ നിങ്ങൾക്കതു പറയാൻ പറ്റുമെങ്കിൽ ആ ഐറ്റം കൂടി വേണമായിരുന്നു ഞങ്ങളിപ്പോൾ ഒരു നാലഞ്ച് ഐറ്റം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെടുക്കുന്ന ഐറ്റത്തിനെല്ലാം ദയവു ചെയ്തു എരിയൊന്നു കുറയ്ക്കണം ജ്യൂസ് ഐറ്റംസിൽ ത് ഒന്നിലും ഐസൊന്നും വേണ്ട തണുപ്പില്ലാതെ എടുത്താൽ മതി പിന്നെ ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയുടെ കാര്യം നിങ്ങളൊന്നും കൂടിയൊന്ന് ആലോചിക്കണം കേട്ടോ എനിക്കറിയാം എന്നാലും അതു തീരെ കുറവായതു കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ